ഹലോ ഊബറിൻ്റെ ഓഫീസല്ലേ അതെല്ലേ എനിക്കൊരു വണ്ടി റെന്റിനെടുക്കാനായിരുന്നു ഞാൻ വിളിക്കണത് എവിടെക്ക് പോവാനാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പാണ് ഉദ്ദേശിക്കണത് വൺഡ്രല്ലക്ക് പോവാനാണ് ഉദ്ദേശിക്കുന്നത് സോ പിള്ളേർക്ക് വെക്കേഷനക്കെ ആണല്ലോ അപ്പം അങ്ങനെ പൂവാന്ന് വെച്ചിട്ട്

എറണാകുളമാണല്ലോ നമ്മളിപ്പോൾ തൃശ്ശൂരാണ് സ്ഥലം എറണാകുളത്തേക്ക് പോയിട്ട് തിരിച്ച് തൃശ്ശൂരന്നെ വരാൻ അന്നന്നെ രാവിലൊരു ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോൾ ഇവിടുന്ന് വണ്ടിവിടാനാണ് ഉദ്ദേശിക്കുന്നത് രാവിലെ ഏഴുമണി അപ്പോൾ ഏതൊക്കെ വണ്ടികളായിരിക്കും നല്ലത് ട്രാവൽ ചെയ്യാൻ ഞങ്ങളൊരു ഏഴുപേരാണുള്ളത് പിള്ളേരും അഡൾസു ഒക്കെ കൂട്ടീട്ട് ഏഴുപേരാണുള്ളത് ടവേര നല്ലയായിരിക്കൂലേ ഓക്കെ അപ്പോൾ ടവേരക്ക് അപ്പോൾ പൈസ ഒക്കെ എത്ര വരും ഒരു വൺ ഡേക്ക് തൗസന്റ് ഫൈവ് ഹണ്ട്രഡല്ലേ ഓക്കെ സോ വണ്ടി ഇവിടെക്ക് രാവിലന്നെ ഏഴുമണിക്ക് എത്താൻ എന്നിട്ട് വൺഡ്രല്ലയിൽ പോവാൻ തിരിച്ചു ഇവിടെ വൺഡ്രല്ലയിലത്തെ കഴിഞ്ഞു ഒരു എട്ട് പത്ത് ഒൻപത് മണിയൊക്കെ ആവുമ്പോൾ ഇവിടെ എത്തൂല്ലോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ മെയ് മുപ്പതാം തീയതി പൂവാനാണ് ഉദ്ദേശിക്കുന്നത് അന്ന് തൊട്ട് ടവേര ഫ്രീ ആയിരിക്കുമോ നോക്കണം അല്ലേ ഓക്കെ നോക്കിട്ടൊന്നു പറയോ ഫ്രീ ആണോന്ന് ടവേര ഓക്കെ ഫ്രീ ആണല്ലേ ഓക്കെ അപ്പോൾ മെയ് മുപ്പതാംതീക്കും ടവേര ബുക്ക് ചെയ്താൽ തൃശ്ശൂരാണ് സ്ഥലം അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാം തൗസന്റ് ഫൈവ് ഹണ്ട്രഡല്ലേ അഡ്വാൻസ് അഡ്വാൻസ് പേയ്മെന്റ് എന്തെങ്കിലുമുണ്ടോ ഓക്കെ സെവൻ ഫിഫ്റ്റി ഓക്കെ ഞാൻ ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തേക്കാം അഡ്വാൻസ് സോ മെയ് മുപ്പതാം തീയതി കേട്ടോ രാവിലെ ഏഴുമണിയാവുമ്പോൾ ഇവിടെ എത്തിക്കോളൂ ഓക്കെ അത്രന്നെ ഉള്ളൂ പിന്നെ വണ്ടിയിലിരുന്നു ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനത്തെ നിയമങ്ങളൊന്നും ഇല്ലാലോല്ലേ ശ്ശേ എന്തായാലും പിള്ളാരായിട്ട് പോവുമ്പോൾ എന്തേലും ഫുഡൊക്കെ കഴിക്കേണ്ടി വരോല്ലോ ഓക്കെ ഓക്കെ കു ഴപ്പമില്ലാല്ലേ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ